ഹലോ ആ എടാ തമ്പാനെ എടാ ഞാൻ വിളിച്ചത് എന്താണെന്ന് വച്ചാൽ ഞാൻ ആണ് ഈ കഴിഞ്ഞ ദിവസം ആ എൻ്റെ ഭാര്യയും പിള്ളേരും ഇന്നില്ല അപ്പം ഞാൻ അത്യാവശ്യം ഇങ്ങനെ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളാണല്ലോ ഇപ്പം എല്ലാം ഓൺലൈൻ ആണല്ലോ പൈസ അടയ്ക്കുന്നതും എല്ലാം ഓൺലൈൻ വഴിയാണല്ലോ അപ്പം നമ്മുടെ ഈ ഭക്ഷണമൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഓൺലൈനിൽ കൂടെയൊക്കെ മേടിക്കാൻ ഇവിടെ വീട്ടിൽ കുറച്ച് ഒന്ന് രണ്ട് തവണയൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം മക്കൾ എന്നെ കാണിച്ചു തന്നിട്ടുണ്ട് കാരണം എങ്ങാനും മക്കളൊക്കെ ഇപ്പം തിരക്കാണല്ലോ അപ്പം ഞാൻ ഭാര്യ ഇപ്പം അവൾ അവളുടെ വീട്ടിൽ പോയേക്കുവണ് അപ്പം ഞാൻ തന്നെ ഉള്ളു അപ്പം അവളെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് കരുതി ഞാനാണെങ്കിൽ രാവിലത്തേക്കുള്ളത് മാത്രമേ ഉണ്ടാക്കി വച്ചിട്ടുള്ളു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവളോട് ഞാൻ പൊക്കോളാൻ പറഞ്ഞു കാരണം അവളുടെ അമ്മ സുഖമില്ലാതെ ആശുപത്രിയിൽ നിൽക്കുവാണ് അപ്പം പിന്നെ ഞാൻ പറഞ്ഞു നീ പൊക്കോ ഞാൻ അത് എങ്ങനേലും ഭക്ഷണം അത് എങ്ങനേലും ഒപ്പിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത വീട്ടിലൊന്നും ചെന്നു ചോദിക്കാൻ എപ്പോഴും എപ്പോഴും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് മക്കളെ ഞാൻ വിളിച്ചപ്പം മക്കൾ എന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ഓൺലൈനിൽ കൂടെ നമ്മൾ ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഭക്ഷണം ഓർഡർ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ സ്വിഗ്ഗി അങ്ങനെ കുറേ ഉണ്ടല്ലോ സൊമാറ്റോ ഒക്കെ അത് വഴി ഞാൻ പഠിച്ചു വച്ചു ഞാൻ അത് ചെയ്തു ആ അപ്പം എനിക്കാണെങ്കിൽ എന്നായിരുന്നു

ഞാൻ അത് കൊണ്ട് തന്നെ എന്നായിരുന്നു അങ്ങനെ ഭക്ഷണം ഓർഡർ ചെയ്തതാണ് അപ്പം എനിക്ക് ആണെങ്കിൽ ഞാൻ പിന്നെയാണ് ഓർത്തത് ഭക്ഷണം ഓർഡറ് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്ക് ആണെങ്കിൽ പതിനൊന്ന് മണിക്ക് എറണാകുളത്ത് ഒരു മീറ്റിഗ് ഉണ്ട് ഞങ്ങളുടെ യൂണിയൻൻ്റെ അപ്പം അത് സാധാരണ നമ്മുടെ അടുത്ത സ്ഥലങ്ങളിലൊക്കെയാണ് വയ്ക്കുന്നത് അപ്പം ഇത്തവണ എന്തോ കാരണത്താൽ അത് എറണാകുളത്ത് കൊണ്ടു വച്ചു അപ്പം എനിക്ക് ആണെങ്കിൽ അത്യാവശ്യമായിട്ട് അവിടം വരെ പോകണം അപ്പം ഞാൻ ആണെങ്കിൽ ഫുഡ് ഭക്ഷണം അത് ഓർഡറും ചെയ്തു എന്നായിരുന്നു അത് കൊണ്ട് തന്നെ എന്നായിരുന്നു എനിക്ക് അത് ഓർഡറ് ചെയ്തത് എന്താണ് എന്താണ് ചില എനിക്ക് അത് റദ്ദാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചത് എന്നാ വച്ചാൽ ചിക്കൻ ബിരിയാണിയാണ് എനിക്ക് ഇഷ്ടപെട്ടതാണ് ചിക്കൻ ബിരിയാണിയൊക്കെ എനിക്ക് ഇഷ്ടമാണ് പെപ്സി അതൊക്കെയാണ് ഞാൻ ഓർഡറ് ചെയ്തത് അപ്പ എനിക്ക് മീറ്റിങ്ങ് പോയി കഴിഞ്ഞാൽ ഞാൻ വരുമ്പം തന്നെ സന്ധ്യയാവും അപ്പം എനിക്ക് ആണേ ഉച്ചക്ക് ആണ് ഓർഡറ് വീട്ടിലേക്ക് വരും അപ്പം ഞാൻ വീട്ടിൽ കാണത്തില്ല വീട്ടിൽ ആരുമില്ല ഭാര്യയും മക്കളുമെല്ലാം വിദേശത്താണ് ഭാര്യ പിന്നെ അടുത്ത ദിവസമൊക്കെ വരികയുള്ളൂ അപ്പം ഈ ഭക്ഷണം വന്നു കഴിഞ്ഞാലും ഈ ഓർഡറ് കൊണ്ടു വന്ന ആൾ അവിടെ നിൽക്കേണ്ടി വരും കാരണം ഇയാൾ ഓർഡറ് കൊടുത്തെങ്കിൽ അത് അതിൻ്റെ വെരിഫിക്കേഷനൊക്കെ ആയിട്ട് പോയാൽ തിരിച്ച് പോകാൻ പറ്റുകയുള്ളു അപ്പം എനിക്ക് ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണം അപ്പം ഞാൻ വിളിച്ചത് എന്നാന്ന് വച്ചാൽ നിനക്ക് ഇതിനെ കുറിച്ചൊക്കെ നല്ല പിടിത്തമാണല്ലോ ഇപ്പം എനിക്ക് ആണേ എനിക്ക് മറവിയുള്ളത് കൊണ്ട് ഞാൻ ആണെങ്കിൽ ഓർഡറ് ചെയ്തു ക്യാൻസല് ചെയ്യാൻ എനിക്ക് റദ്ദാക്കാൻ എനിക്ക് അറിയത്തില്ല ഈ ഓർഡർ എനിക്ക് റദ്ദാക്കാൻ അറിയത്തില്ല അതുകൊണ്ട് തന്നെ എന്നായിരുന്നു നീ എന്നെ ഒന്ന് സഹായിക്കാമോ ഇതെങ്ങനെയാണ് ഒന്ന് ചെയ്യേണ്ടത് എന്നൊന്ന് സഹായിക്കാമോ അതിനാണ് ഞാൻ നിന്നെ വിളിച്ചത് ആ ആണോ ഓ ഈ ഈ ആപ്പ് അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിൽ ചെയ്താൽ മതി അല്ലേ ഓ ഈസി ഇതിൻ്റെ എന്നെ സൊമാറ്റോ സ്വിഗ്ഗീഡെയൊക്കെ തന്നെ സൊമാറ്റോ വഴിയാണ് സൊമാറ്റോ വെബ്സൈറ്റിൽ കയറിയാൽ ആ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ ഓ ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ഓ ഇത് എളുപ്പായിരുന്നല്ലോ ആ അപ്പം അതിനകത്ത് കയറി നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് ഒന്ന് ഈ ഓർഡറ് റദ്ദാക്കിയാൽ മതി അല്ലേ ഓക്കേ ഓക്കേ ആ പിന്നെ നിനക്ക് എന്നാ ഉണ്ട് വിശേഷം നീ ഇങ്ങനെയൊക്കെ ഓർഡർ ചെയ്തു കഴിക്കാറൊക്കെ ഉണ്ടോ ആ ഉണ്ടല്ലേ ആ പിന്നെ നമുക്ക് ഇപ്പം എടാാ ഇവിടെ എനിക്ക് ആണെങ്കിൽ ഹോട്ടലിൽ പോയി മേടിക്കാവുന്നതേ ഉള്ളു അതിന് എനിക്ക് ഈ വണ്ടി ഓടിക്കാനൊക്കെ ഇച്ചിരി വയ്യ അപ്പം ഞാൻ ആണെങ്കിൽ എറണാകുളത്ത് പോകുന്നതും എൻ്റെ ഒരു കൂട്ടുകാരൻ കാറുമായിട്ട് വരുന്നുണ്ട് അപ്പം അവൻ്റെ കൂടെ അങ്ങ് കാറിൽ കയറി പോകാലോ പഴയ പോലെയൊന്നും യാത്ര ചെയ്യാനൊന്നും പറ്റത്തില്ലന്നേ ബസിലും ഒക്കെ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ആണെങ്കിൽ കാർ ഓടിക്കാനും സ്കൂട്ടർ ഓടിക്കാനുമൊക്കെ പഴയ പഴയത് പോലെ വയ്യ അടുത്ത് അടുത്ത് അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മുടെ തന്നെ വണ്ടിയും കൊണ്ടൊക്കെ പോകും കുഴപ്പമൊന്നുമില്ല സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ പക്ഷെ ഇന്ന് എന്തോ എനിക്ക് ഇച്ചിരി കാലിന് ഇച്ചിരി ഭയങ്കരമായിട്ട് വേദന കൂടി അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി അവിടെ ടൗണിലെ എന്നായിരുന്നു സ്റ്റാർ ഹോട്ടലിൽ പോയി ഞങ്ങൾ അവിടുത്തെ ഭക്ഷണം അടിപൊളി ആണല്ലോ സ്റ്റാർ ഹോട്ടലിൽ പോയി അവിടെ ഇങ്ങനെ ഓൺലൈൻ സംവിധാനമൊന്നുമില്ല അതായത് നമ്മുടെ പണ്ടത്തെ ഹോട്ടൽ അല്ലേ പഴയ കാലഘട്ടത്തിലെ ഹോട്ടലല്ലേ നമ്മൾ എത്ര അവിടെ ഇരുന്ന് എത്ര ഭക്ഷണം കഴിച്ചിരിക്കുന്നു അല്ലേ

ഇത് ഈ മീറ്റിങ്ങിന് പോകുന്ന കാര്യം കാരണം മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരികയുള്ളൂ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ എന്തായാലും ഉച്ചയ്ക്ക് ഈ സാധനം വരുവല്ലോ വീട്ടിൽ ഞാൻ വീട്ടിൽ കാണാത്തില്ല വീട്ടിൽ ആരുവില്ല ഇനി അയൽവക്കകാരോട് അവരൊക്കെ എപ്പോഴും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയൊന്നുമല്ലല്ലോ കാരണം കഴിഞ്ഞ തവണ കു റേ ആവശ്യം വന്നപ്പോൾ അവരെക്കെ ഓരോ ഇതിൽ പറഞ്ഞു അപ്പം ഇപ്പോഴും അവരോട് പിന്നെ അവരൊന്നും ചിലപ്പോൾ വീട്ടിലും കാണാത്തില്ല എല്ലാവരും ജോലിക്കാരൊക്കെയാണ് അപ്പം ഞാൻ പിന്നെ എന്ന് പിന്നേ ഇത് ക്യാൻസല് ചെയ്യുകയാണെങ്കിൽ അത്ര സമാധാനത്തോടെ എറണാകുളത്തിന് മീറ്റിങ്ങിന് പോകാൻ പറ്റും യൂണിയൻ്റെ മീറ്റിങ്ങിന് അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചത് നിനക്കാണങ്കിൽ ഫോണിൻ്റെ പരിപാടിയൊക്കെ അറിയാമായിരിക്കും എനിക്ക് ആണെങ്കിൽ ഫോൺ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മക്കളൊക്കെ അടുത്തുണ്ടെങ്കിൽ അവർ കാണിച്ചൊക്കെ തരും നമുക്ക് എളുപ്പമാണ് പക്ഷെ ഇല്ലാത്തപ്പം എനിക്ക് മറവിയുടെയൊക്കെ പ്രശ്നമുള്ളത് കൊണ്ട് പെട്ടന്ന് അങ്ങ് ഓർക്കുന്നില്ല ചില ചില സംഭവങ്ങളൊക്കെ പെട്ടാച്ച ആ ഒരു പേടി കാരണം പെട്ടെന്ന് അങ്ങ് മറന്ന് പോകും

അതെന്തായാലും ഭയങ്കരായിട്ട് എനിക്ക് എന്നെ സഹായിച്ചു നീ എന്തായാലും നിന്നെ വിളിച്ചത് നിന്നെ കിട്ടിയത് തന്നെ ഭാഗ്യം കാരണം ഇപ്പം സംഭവം എന്താണെന്ന് വച്ചാലും എന്നാലും എടാ നമ്മളിപ്പം സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ വഴി വന്നു പറഞ്ഞാലും ആ നമ്മുടെ ജീവിതം മാറുന്നത് അനുസരിച്ച് കണ്ട് പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് നമ്മൾ അത് ഉൾക്കൊള്ളണം നമ്മൾ ഇപ്പം പഴയ ആൾക്കാരാണ് എന്ന അങ്ങ് പറഞ്ഞിട്ടും കാര്യമിന്നുമില്ല കാരണം പുതിയ ജനറേഷനിൽ പിള്ളേരുവൊക്കെ ആയിട്ട് നിൽക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം അപ്പം ഇപ്പം ഈ ഇടയ്ക്ക് എൻ്റെ മകൾ മകളാണെങ്കിൽ എന്നെ ഫോണിൽക്കൂടെ പൈസയൊക്കെ ഇത് ചെയ്യാൻ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ എപ്പോഴും ബാങ്കിലൊക്കെ പോകും കാരണം ഞങ്ങളുടെ ഇപ്പം അത് കൂടിയത് കൊണ്ട് നമുക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ വണ്ടിയെടുക്കാൻ എപ്പോഴും പറ്റത്തൊന്നുമില്ല അഥവാ വീട്ടിലെ പല കാര്യങ്ങളും നമുക്ക് വീട്ടിൽ തന്നെ നമുടെ ഫോണുണ്ടെങ്കിൽ അതേ കൂടെ അങ്ങ് ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത് ആ അത് തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഒരു സഹായകമായി അത് ചെയ്തപ്പോൾ അത് തീർച്ചയായിട്ടും കൊള്ളാം നല്ല പരിപാടിയാണ് ഇതൊക്കെ കാരണം നമുക്ക് ഇപ്പം എല്ലായിടത്തും പോകേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കുമല്ലോ ഇനി പാഴ്സല് മേടിച്ചാൽ പോരെ അതാണെങ്കിൽ അവർ തന്നെ ആലോചിച്ച് അതിൻ്റെ ഇച്ചിരി എക്സ്ട്രാ പേയ്മെൻ്റാകും കാരണം ഈ പിള്ളേർ സ്വിഗഗി സൊമാറ്റോ ഒക്കെ പോണ പിള്ളേരൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ അടുത്ത് ഒരു വീട്ടിലെ മകൻ അവനാണെങ്കിൽ വിദേശത്ത് പോകാൻ നിൽക്കുവാണ് അപ്പം അവൻ ആ ഗ്യാപ്പിലാണെങ്കിൽ ഇങ്ങനെ ഈ സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് നല്ല കാര്യമാണ് പിള്ളേർ ജോലി ചെയ്യട്ടെ കാരണം ജോലി ചെയ്താലേ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ആ എന്തായാലും എന്നായിരുന്നു ആ പരിപാടിയൊക്കെ അങ്ങനെ അങ്ങ് നടക്കട്ടെ അങ്ങനെ അങ്ങ് പോട്ടെ ആ അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് കാരണം അല്ലെങ്കിൽ ടെൻഷനാകുമെന്നെ പോവുന്ന വഴിക്ക് ഭക്ഷണ സാധനമല്ലേ നമുക്ക് കളയാൻ പറ്റുമോ എത്രയോ ആൾക്കാരാണ് ഭക്ഷണമൊന്നുമില്ലാതെയൊക്കെ ജീവിക്കുന്നു നമ്മൾ അപ്പം ഭക്ഷണം ഇങ്ങനെ മേടിച്ച് വെറുതെ പൈസയും കളഞ്ഞ് നമ്മൾ അതൊക്കെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഞാൻ ഇപ്പം വീട്ടിലാണെങ്കിലും പറയും എന്തുണ്ടാക്കിയാലും അളവിനന് അനുസരിച്ചേ ഉണ്ടാക്കാവുള്ളൂ കൂടുതൽ ഉണ്ടാക്കരുത് കാര്യം ഇത് വീട്ടിൽ ഞാനും അവളുമെ ഉള്ളു അളവ് അനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി കൂടുതലൊന്നും ഉണ്ടാക്കണ്ട കാരണം വേസ്റ്റായി പോകും നമ്മൾ വെസ്റ്റേക്കെ ഉണ്ടല്ലോ അത് അനുസരിച്ച് സാധനം മേടിച്ചാൽ അപ്പം ഇന്ന് പെട്ടന്നൊരു സാഹചര്യം വന്നത് കൊണ്ട് എനിക്ക് ചിക്കൻ ബിരിയാണി തിന്നാനൊരു മോഹം തോന്നി ആ വേണമെങ്കിൽ എനിക്ക് അടുക്കളയിൽ കയറി എന്തെങ്കിലിമൊക്കെ ചെറിയ രീതിയിൽ വേണമെങ്കിൽ എന്നാൽ പിന്നെ ഇന്ന് ചിക്കൻ ബിരിയാണി അങ്ങ് കഴിച്ചേക്കാമെന്ന് വച്ച് അങ്ങനെ ഓർഡറ് ചെയ്തു പിന്നെ പെപ്സി അതൊക്കെ ഇഷ്ടമാണ് ഇടക്കിടയ്ടക്ക് മക്കൾ വരുമ്പം അങ്ങനെയൊക്കെ മേടിച്ച് കഴിക്കാറൊക്കെയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് മേടിച്ചത് പിന്നെ എന്തായാലും ഞാൻ അത് സംഭവമെല്ലാം ചെയ്തത് ക്യാൻസൽ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേടാ അപ്പം ഇങ്ങനെ അങ്ങ് ചെയ്ത മതി അല്ലേ